ഹലോ ആരായിരുന്നിത് ആ ഓക്കെ ബാബു എന്നാ ഉണ്ട് വിശേഷം ആ ഓക്കെ ആ ആ ഓക്കെ

ഓക്കെ ഐ ഡി കാർഡൊന്ന് സൂക്ഷിക്കേണ്ടതായിരുന്നല്ലോ ബാബുവേ നമുക്ക് ആ കോളേജി എൻറ്റർ ചെയ്യാണെങ്കിലും നമ്മുടെനി എല്ലാ കാര്യങ്ങൾക്കും ഐ ഡി കാർഡ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണല്ലോ ആണോ ആ നമുക്ക് ഇനിയും അത് കിട്ടോന്നുള്ള ഓപ്ഷൻ കി കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ അന്വേഷിച്ചായിരുന്നോ അതിനെ കുറിച്ച് ഓ ഓക്കെ ആ ഓക്കെ അങ്ങനാണെങ്കിൽ നമുക്കേ ആ ഓഫീസിലാ ആ ഒരു കാര്യം ചെയ്യ് ഒരു ആ റിക്വസ്റ്റ് വെക്കാം ഇങ്ങനെ എൻ്റെ ഐ ഡി കാർഡ് ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയെന്നുള്ളതിന് കറക്റ്റ് ഒരു വെച്ചോണ്ടൊരു ആ റിക്വസ്റ്റ് സമർപ്പിക്കുവോ ആൻഡ് സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഡീറ്റെയിൽസെല്ലാം കൂടെ ഒന്നെഴുതി കൊടുക്കണൊന്നൂടെ ആ ക്ലാസ് ഏത് ക്ലാസിലാണ് പേര് ആ ക്ലാസിൻ്റെ റോൾ നമ്പരിതാണ് ഐ ഡി നമ്പരുണ്ടല്ലോ ഐ ഡി നമ്പരുവെല്ലാം അതിൽ വ്യക്തമായിട്ടെഴുതി കൊടുക്കണം കേട്ടോ അതോടൊപ്പം നമുക്ക് ആ പുതിയൊരൈഡി കാർഡിന് വേണ്ടി നമുക്കൊരു ഫൈൻ കൂടെയുണ്ട് കാരണം ആ ഇത് ചെയ്യുന്നതിൻറ്റൊക്കെ ഒരു ചാർജുണ്ടല്ലോ എന്നാൽ ആ ഫൈനിന്ന് പേ ചെയ്തിട്ട് അതിൻ്റെ റെസിപ്റ്റ് ആ എൻ്റെ ഓഫീസിലൊന്ന് വാ ഞാനപ്പോൾ സൈൻ ചെയ്ത് തന്നാലേ അവർക്കത് ചെയ്യാൻ പറ്റൂള്ളൂ അത് നൂറ് രൂപയാണ് നമ്മൾ സാധാരണ വാങ്ങുന്നത് കാരണം നമുക്ക് ഓക്കെ

ആ ഓക്കെ അത് നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മളെ ഉത്തരവാദിത്വമായിരുന്നല്ലോ പിന്നെ അത് ആണോ ബാബു ഒരു കാര്യം ചെയ്യ് അപേക്ഷ സമർപ്പിച്ചിട്ട് ഓഫീസിലേക്ക് വരുക അപ്പോൾ ഞാനത് സൈൻ ചെയ്തേരാം അല്ലെങ്കിൽ ഞാനതിന് അത് ഇത് റിക്വസ്റ്റിന് ഞാനവിടെ ഞാനെഴുതി തരാം അങ്ങനാണെങ്കിൽ ഓഫീസുന്നപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അവിടൊരു സീലും മേടിച്ച് എൻ്റെ ഓഫിസിലേക്ക് വരുക അവിടെ വന്ന് കഴിയുമ്പം ഞാനതിൽ സൈഡിലെഴുതി തരാം അത് കഴിഞ്ഞിട്ട് പോയിട്ട് ആ അപ്ലൈ ചെയ്യേട്ടോ ഒരായ്ച്ച കഴിയുമ്പോൾ നമുക്ക് ആ എല്ലാം എഴുതി കൊടുത്ത് കഴിയുമ്പം ഒരാഴ്ച കഴിയുമ്പം നമുക്ക് സാധനം കിട്ടും ഇനിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം കേട്ടോ ആ ഓക്കെ

അതിന് നമ്മുടെ പേരും ക്ലാ ക്ലാസിൻ്റെ ക്ലാസിനും റോൾ നമ്പരുവൊക്ക ഓർമ്മയുണ്ടോ അതൊക്കെ ആ ടീച്ചറോട് ചോദിച്ചിട്ട് ആ ആ റെക്കോർഡിക്കലി എടുത്തിട്ടതൊന്നെഴുതി കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ വെച്ചോണ്ട് അത് നമുക്കെളുപ്പത്തിന് വേണ്ടിയാണ് ഡേറ്റാ കളക്ഷന് വേണ്ടിയേ ആ റെക്കോർഡിക്കലാക്കാൻ വേണ്ടിയുള്ള വേണ്ടിയാണ് ഇത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിലതെഴുതി കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനോടൊന്ന് പറഞ്ഞിട്ട് ആ ഹെഡിൻറ്റേന്ന് ഒന്നെഴുതി മേടിച്ചാൽ മതി കേട്ടോ ആ ഓക്കെ ഒരാഴ്ച്ച ആ ഒരാഴ്ച സമയമെടുക്കും ആ വെയിറ്റ് ചെയ്യൂട്ടോ അപ്പം ഇനിയും ഐ ഡി കാർഡ് നഷ്ടപ്പെടാതെ നോക്കണം കേട്ടോ ഓക്കെ ഓക്കെ കാണം സി യു ഓക്കെ